ഹലോ ആരായിരുന്നു വിളിക്കുന്നത് അതെയല്ലോ എന്തായിരുന്നു ചേച്ചി പറഞ്ഞുകൊള്ളൂ അ ആ ഉണ്ടായിരുന്നു ചേച്ചി ഞങ്ങളൊത്തിരി നാളായിട്ട് പശു വളർത്തുന്നതാണ് രണ്ടുമൂന്ന് പശുവൊക്കെയുണ്ട് ഒരു പശുവിന് ഒരു ചെനക്കോളുണ്ടായിരുന്നു ചിലപ്പോള് അതിൻ്റേതായിരിക്കാനൊരു സാധ്യത കാണുന്നുണ്ട് ആ ഇപ്പോള് ഈ വെള്ളം പോലെയാണല്ലെ ഈ എച്ച് എഫ് പശുവെന്ന് പറഞ്ഞാല് ഹോൾസ്റ്റെയ്ൻ ഫ്രിഷ്യൻ എന്നു പറയുന്ന പശുവിൻ്റെ ആ ഒരു ഇനത്തിനിത്തിരി വ്യത്യാസമുണ്ട് പാലിൻ്റെ കൊഴുപ്പിന് വ്യത്യാസം വരും നമ്മളീ സാധാരണ ജേഴ്സി പശുവിൻ്റെ പാലാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൊഴുപ്പുള്ള പാലാണ് നമുക്ക് കിട്ടുന്നത് അതേസമയം എച്ച് എഫ് പശുവിന് ഈ വെച്ചൂർ പശുവെന്നൊക്കെ പറയുന്നത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ പാലാണ് ശരിക്കും കിട്ടുന്നത് നമുക്കാ ഒരു കട്ടി തോന്നുകയില്ല പാലിന് സാധാരണ നമ്മള് പാല് മേടിക്കുമ്പോള് ഈയിടെ തന്നത് എച്ച് എഫിന്റേതാണ് അതിനാണ് അത്ര കട്ടി തോന്നുകയില്ലാത്തത് പക്ഷേ നല്ലയിനം പശുവാണ് പക്ഷേ പശുവിൻ്റെ പാലെന്ന് പറയുമ്പോള് നമ്മുടെ സാധാരണ ജേഴ്സി പശുവിൻ്റെയൊക്കെ പോലെ അത്രയും കട്ടി തോന്നുകയില്ല പാലിന് പിന്നെ ആ പശുവിൻ്റെ ചെനക്കോള് വെള്ളം കൂട്ടിയാണ് തരുന്നതെന്നുണ്ടോ ആ അയ്യോ വെള്ളംകൂട്ടി തരുന്നതല്ല ചേച്ചി ഒരു ചെനക്കോളാണ് പശുവിനെ കുത്തിവെപ്പിക്കാൻ വേണ്ടി ആളെ വിളിച്ചിട്ടുണ്ട് അപ്പം ഈ കുത്തിവെപ്പിക്കാമെന്നു പറയുന്ന കമ്പോണ്ടര് അയാൾക്ക് ഭയങ്കര താമസമാണ് അപ്പോള് അങ്ങനെയൊരു പ്രശ്നമുണ്ട് കറവയുള്ള രണ്ടു പശുക്കളും കൂടിയുണ്ട് ഞങ്ങള് സ്ഥിരമായിട്ട് പശു വളർത്തുന്നവരാണല്ലോ ഒരെണ്ണം ഈ പറയുന്ന എച്ച് എഫ് ഉം ആ പാല് ആ മറ്റേ പശുവിൻ്റെ പാലെടുക്കാം കുഴപ്പമില്ല ചേച്ചി വെള്ളം കൂട്ടിയൊന്നും തരുന്നതല്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങള് പാക്കറ്റ് പാൽ

ആ ആ പാക്കറ്റ് പാലൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നോ അല്ലാതെ അതെ അതെ അതെ ആ ശരിക്കും ആ അത് അതെ അതെ അതെ ആ ആ ആ ഞങ്ങള് സ്ഥിരമായിട്ട് പശു വളർത്തുന്നതാണ് മിൽമയില് പാല് കൊടുക്കാം നമുക്ക് പാല് കൂടുതലുള്ളപ്പോള് വണ്ടി ഇവിടെ വന്നെടുത്തുകൊണ്ട് വീട്ടിൽ വന്ന് കൊണ്ടുപോവുകയൊക്കെയാണ് ചെയ്യുന്നത് നല്ല പാലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ആ ഇതുവരെയൊന്നും വന്നിട്ടില്ല ഇതിപ്പം പശു ചെനക്കോള് കാണിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും പിന്നെ ഈയിടയ്ക്കൊക്കെ ഒത്തിരി രോഗങ്ങളൊക്കെ ഈ കൊളമ്പ് രോഗം പോലെയൊക്കെ പശുവിന് വരുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇതുവരെയും ഇവിടെയൊന്നും വന്നിട്ടില്ല ആ പ്രതിരോധകുത്തിവെപ്പൊക്കെ എടുത്തതായിരുന്നു അ അതെ അതെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു രോഗങ്ങളുമൊന്നുമില്ല ആ അതെ അതെ ആ നമ്മള് ആ വീട്ടിലെ വെള്ളവും കാടി അതുപോലെതന്നെ പുല്ലില്ലാതെ വന്നാൽ മാത്രം നമ്മള് മേടിക്കുകയുള്ളൂ പച്ചപ്പുല്ലാണ് ഏറ്റവും നല്ലത് കൊടുക്കുന്നതിന് പശുവിന് ആ അതെ അതെ നല്ല പാലാണ് നമ്മള് മേടിക്കുന്നത് ആ പാലിൻ്റെ കട്ടിയിലൊരു വ്യത്യാസം വരുന്നുത് അത് നമ്മുടെ ജേഴ്സി പശുവിൻ്റെ പാലാണ് ഏറ്റവും നല്ലതെന്നു പറയുന്നത് നമുക്ക് പിന്നെ ഈ ജേഴ്സി പശുവിനെ ഇപ്പോള് കിട്ടാനും കുറവാണ് അങ്ങനെയൊരു പ്രശ്നവുമുണ്ട് ഇപ്പോള് എച്ച് എഫ് ആണ് നമ്മുടെ നാട്ടിൽ കൂടുതലും കിട്ടുന്നത് അ അപ്പോള് അതിൻ്റെ ആ പാലിൻ്റെ കട്ടിയിലൊരു വ്യത്യാസം വരുന്നതുകൊണ്ടാണ് അ അതെ അതെ ആ അത് ശരിയാക്കിക്കൊള്ളാം ചേച്ചി കുഴപ്പമില്ല കേട്ടോ ആ ശരി ശരി ആ